ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചൊരു പ്രോഡക്റ്റായിരുന്നു ഹാൻഡ് ബാഗ് ഞാൻ ഉദ്ദേശിച്ച കളർ ഞാനൊരു ബ്ലാക്ക് ഹാൻഡ്ബാഗാണ് ഞാൻ വാങ്ങാൻ ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിരുന്ന ഓർഡർ നല്കിയതും അങ്ങനെ ആയിരുന്നു പക്ഷെ വന്നപ്പോൾ ആ ഒരു കളറ് തന്നെ എക്സാറ്റിലി വേറെ ആയിരുന്നു വന്നതൊരു ബ്ലൂ കളർ ആയിരുന്നു മെറ്റീരിയല് വരെ ശരിയല്ലായിരുന്നു ആൾറെഡി കളറ് ഡിമ്മായിട്ടുള്ള ആ ഒരു സൈഡിൽ ഒരു ഗോൾഡ് ഒരു ഗോൾഡിൻ്റെയൊക്കെ ഒരു കോട്ടിങ്ങുണ്ടായിരുന്നു അതൊക്കെ കളറ് ഡിമ്മായതായിരുന്നു നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വാങ്ങിച്ചത് പക്ഷെ അത് ഒരിക്കലും ചീപ്പായിട്ടുള്ള ഒരു മെറ്റീരിയലായിരുന്നു